ലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ആ സാറേ ഞാൻ ആലപ്പുഴേന്നാണ് വിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച്ച അരൂർ പോവാൻ എറണാകുളത്ത് പോയ വഴി ഞാൻ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടായിരുന്നു പാതിരപ്പള്ളി വെച്ച് പാതിരപ്പള്ളീലല്ല കൊമ്മാടി വെച്ച് അപ്പം ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനി ക്കമ്പ്ലൈറ്റ് ചെയ്തിരുന്നു അതിനേപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എൻ്റെ ഫോൺ വല്ലോം കിട്ടിയത് അല്ല നഷ്ടപ്പെട്ടത് ബസ്സി വെച്ച് ആരോ പോക്കറ്റടിച്ചതാണ് അതിൻ്റെ ഞാൻ കം ആ ബെസ്സിൽ വെച്ച് ആരോ എൻറ്റേയ്ന്ന് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടൊന്ന് ഉറങ്ങിയതാണ് പക്ഷേ ഞാൻ മയങ്ങിപ്പോയി പക്ഷേ ഞാൻ നോക്കുമ്പം എൻ്റെ പോക്കറ്റിപ്പിന്നെ ഫോണില്ല ഞാനാ മാത പിന്നെ മൊബൈല് മാത്രമേ നഷ്ടപ്പെട്ടുള്ളു ഞാനതവിടെ എഴുതി തന്നിട്ടില്ലായിരുന്നു സാറിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ അന്ന് ആ സാറില്ലായിരുന്നു അപ്പം അവിടെ റൈറ്ററൊണ്ടായിരുന്നു എഴുതി കൊടുക്കാൻ പറഞ്ഞു എഴുതി കൊടുത്തിരുന്നു എൻ്റെ പേര് തോമസ് എൻ്റെ പേര് തോമസെന്നാണ് അല്ല സാറേ ഫോർവേഡ് ചെയ്തിരിക്കുകയാന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച്ച വന്നതല്ലേ സാറേ ഇന്ന് ഞായറാഴ്ച്ചയായില്ലേ ഫോർവേഡ് ചെയ്തിരിക്കുകാന്നാണോ സാറ് പറയുന്നത് സാറേ ഞാൻ അതിന്റെ ഐ യെമ്മ ഐ നമ്പരും സാറേ അതിൻ്റെ ഐ യെമ്മ ഐ നമ്പരൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ആ ഫോൺ നമ്പറും ഒ ആ ആ എനിക്ക് സാർനേ ഇന്നുവന്ന് ഒന്ന് കാണാനൊക്കുമോ ഞാനിപ്പം ഞാനീ ഞാൻ ഞാൻ നോർത്ത് പൊലീസ് സ്റ്റേഷൻ്റട്ത്ത് നിൽപ്പുണ്ട് എനിക്ക് അവിടെ വന്നാൽ സാർനേയൊന്ന് കാണാനൊക്കുമോ ആ സാറേ അതല്ല ഫോളോ അപ്പ് ഫോളോ അപ് ചെയ്യാണ് സാറ് ഫോളോ അപ്പ് ചെയ്യണം പിന്നെ പോലീസ് ഡിപ്പാട്ട്മെൻറ്റിനാത്തൊരു വിശ്വാസമൊക്കെയുണ്ട് ഈ അങ്ങോട്ടുന്തട്ടി അങ്ങോട്ടിങ്ങോട്ട് ആ ഓക്കെ ആ സൈബർ സെല്ല് നിങ്ങളുടെ ഭാഗമാണ് രണ്ട് ഞാൻ വിജയ് എന്ന ഞാൻ ഞാൻ വിജയനെ വിളിച്ചു ഞാൻ വിജയനെ വിളിക്കണോ സാറേ സാറേ സാറ് ഞാൻ ഡീ വൈ ഞാൻ ആലപ്പുഴ